നൃത്തത്തിന് വേണ്ടി ആൾക്കാര് ഒരുപാട് പേര് ഒരുപാട് സങ്കടകരമായ ജീവിത പാതയിലൂടെയാണ് നൃത്തത്തിലേക്ക് എത്തിപെടുന്നതും സമൂഹത്തിൽ അംഗീകരിക്കുന്ന ഒരു നർത്തകിയായി വരുന്നത് ഒക്കെ അത് ഒരുപാട് തടസങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ട് ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഒക്കെ അതില് പിന്നെ കുറച്ച് പേർ നൃത്തത്തിന് വേണ്ടി ഫാമിലി പരമായിട്ടും സമൂഹപരമായിട്ടും അവരെ പിന്തുണക്കുന്നു കുറെ പേരെ സമൂഹം തിരസ്കരിക്കുന്നു തള്ളിക്കളയുന്നു കാരണം നൃത്തം ഒരു മോശമായ കലയെന്ന രീതിയിൽ ചിലർ കാണുന്നു അതിന് പെൺകുട്ടികളെ അങ്ങനെ തുള്ളാൻ വിടുന്നില്ല എന്ന രീതിയിൽ കുറെ പേർ അങ്ങനെ കരുതി അതിനെയെല്ലാം തിരസ്കരിക്കുന്നു കുറച്ച് പേർ അതിനെ പിന്തുണയ്ക്കുന്നുമുണ്ട് അപ്പൊൾ ഒരുപാട് സൗകര്യക്കുറവുകളും നൃത്ത്യ അധ്യാപകർ കുറവും എല്ലാം നമ്മുടെ സമൂഹത്തിൽ നൃത്തത്തിന് വേണ്ടി ഇല്ലാണ്ടാവുന്നു അങ്ങനെ ഒരുപാട് വെല്ലുകളും നേരിടുന്നുണ്ട്